ഇപ്പം മൃഗസംരക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തെ നമ്മൾ പരിപാലിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന് കുറെ വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പട്ടിനെ വളർത്തിക്കഴിഞ്ഞാൽ അതിനു മെയിൻ ആയിട്ട് ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അതിന് വാക്സിനേഷൻ ഒക്കെ എടുത്തുകഴിഞ്ഞാലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം നമ്മളിപ്പം ഒരു പട്ടിനെ ഇപ്പോൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ നമ്മൾ ആദ്യം പോയിട്ട് വാക്സിനു കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലെ നമുക്ക് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതൊരു വെല്ലുവിളി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറേ നിയമങ്ങളൊക്കെയുണ്ട് ഇപ്പം ഒരു മൃഗത്തെ നമ്മൾ കൊണ്ട് വന്നുകഴിഞ്ഞാൽ അതിന് നമ്മൾ ഇൻഷൂറ് കാര്യങ്ങളൊക്കെ ചെയ്യണം പെട്ടെന്ന് ഇപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാഷ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു മൃഗത്തെ നമ്മളിപ്പോൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ എന്തെങ്കിലും അപേക്ഷ അപേക്ഷ കൊടുത്ത് അതിനെ അതിന് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മൃഗത്തെയൊക്കെ വാങ്ങി വളർത്താനുള്ള ഒരു ഇതുള്ളൂ നമുക്കിപ്പോൾ ഒരു ആല തുടങ്ങണമെങ്കിൽ തന്നെ അതിന് അപ്പ്രൂവൽ ഒക്കെ വാങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് അത് തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ പന്നി ഫാം ഒക്കെ തുടങ്ങാനാണെങ്കിലും ഇപ്പോൾ കോഴി ഫാം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുവാണെങ്കിൽ അത് പുറമേ ബാക്കിയുള്ളവർക്ക് ശല്യം ഇല്ലാത്ത രീതിയിലുള്ള അത് ഉണ്ടെങ്കിലൊക്കെ മാത്രമേ നമുക്ക് അത് സാധിക്കുള്ളൂ പിന്നെ ഇതിനൊക്കെ ഒരു നമുക്ക് യൂട്യൂബ് ചാനലിൽ കാര്യങ്ങളൊക്കെയുണ്ട് അതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ വളർത്തേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കാണിക്കുന്നുമുണ്ട്